ഈ ഗ്രാമ പ്രദേശത്തെ ആളുകള് പ്രധാനമായിട്ടും അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് കോടതികളും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ അഭാവം ഇപ്പം ഗ്രാമ പ്രദേശങ്ങളില് ഈ പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ കോടതിയൊക്കെ വളരെ കുറവാണ് ഇപ്പം നമ്മടെ കേരളത്തിലൊക്കെ കോടതി ജില്ലാ കോടതി മുൻസിഫ് കോടതി താലുക് കോടതി ഒക്കെയാണ് ഉണ്ടാവുക അപ്പോൾ ഗ്രാമ പ്രദേശത്ത് ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കോടതീലേക്കെക്കേ എത്തിപ്പെടുകാന്നു പറയുമ്പോൾ ഇത്തിരി ദൂരം കൂടുതലാണ് ഇവർക്ക് അവടെ എത്തിപ്പെടാൻ തന്നെ വളരെ അധികം ബുദ്ധിമുട്ടാണ് ഗ്രാമ പ്രദേശത്തു നിന്ന് ഒരു പത്തും പതിനഞ്ചും കിലോമീറ്റർ ഒക്കെ താണ്ടിയിട്ട് വേണം ഇവർക്ക് കോടതീല് ചെന്നെത്താൻ വേണ്ടിയിട്ട് അത് വലിയൊരു ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെയാണ് പോലീസ് സ്റ്റേഷൻ്റെ അഭാവവും ഇന്ന് ഗ്രാമ പ്രദേശം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ഒന്നാണ് പോലീസ് സ്റ്റേഷൻ ദിനം പ്രതി കുറ്റകൃത്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഗ്രാമ പ്രദേശങ്ങളില് പോലീസ് സ്റ്റേഷൻ്റെ അഭാവം വളരെ വലിയൊരു പങ്കു വഹിക്കുന്നുണ്ട് ഈ ഗ്രാമ പ്രദേശങ്ങളിലൊക്കെ പോലീസ് സ്റ്റേഷൻ ഉണ്ടേന്നു വെച്ചാൽ ഈ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കുറയും പക്ഷെ ഗ്രാമ പ്രദേശങ്ങളില് പോലീസ് സ്റ്റേഷൻ കുറവായതുകൊണ്ട് കുറ്റങ്ങള് ദിനംപ്രതി കൂടിക്കൊണ്ടും ഇരിയ്ക്കാണ് അതുപോലെ തന്നെ മോഷണങ്ങള് പിടിച്ചുപറി ഇങ്ങനുള്ള സംഭവങ്ങൾ ഒക്കെ കൂടി വരുവാണ് ഇതിനുള്ള പ്രധാന കാരണം ഗ്രാമ പ്രദേശങ്ങളില് നിയമപരമായിട്ടുള്ള സേവനങ്ങള് ലഭിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഈ ഉൾപ്രദേശങ്ങളില് കുറച്ചുകൂടി കോടതികളും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനും വരികയാണെങ്കില് ഈ പറഞ്ഞ പ്രശ്നങ്ങളക്കെ നമ്മൾക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും ഉദാഹരണവായിട്ട് നമ്മുടെ ഗ്രാമ പ്രദേശത്ത് ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടെങ്കില് അതിൻ്റെ ചിറ്റും നടക്കുന്ന ഈ കൊള്ള പിടിച്ചുപറി അതുപോലെയുള്ള അക്രമങ്ങളും അനീതികളൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും കാരണം പോലീസ് സ്റ്റേഷൻ അവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ഭയത്തില് അവിടുള്ള നാട്ടുകാരും അതുപോലെ തന്നെ കള്ളന്മാരും പിടിച്ചുപറിക്കാരും ഭയന്ന് അങ്ങനെയുള്ള അക്രമങ്ങൾ കുറയും പക്ഷേ നമ്മുടെ ഈ ഗ്രാമ പ്രദേശങ്ങളില് നിയമപരമായിട്ടുള്ള സേവനങ്ങൾടെ അഭാവം മൂലമാണ് ഇന്ന് നമ്മുടെ നാട്ടില് കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചോണ്ടിരിക്കുന്നത് ഇത് ഒരു പരിധി വരെ നമുക്ക് ഗ്രാമ പ്രദേശങ്ങളില് ഈ പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ കോടതി ഒക്കെ വരുന്നതിലൂടെ കുറയ്ക്കാൻ പറ്റും ഇത് ഇല്ലാത്തതു കൊണ്ടാണ് അല്ലെങ്കിൽ ഈ കോടതിയും പോലീസ് സ്റ്റേഷനും ഒന്നും നമ്മടെ ഗ്രാമ പ്രദേശങ്ങളില് ഇല്ലാത്തതു കൊണ്ടാണ് ഇന്നത്തെ നാട്ടില് വളരേ അധികം പ്രശ്നങ്ങള് കൂടിക്കൊണ്ടിരിക്കുന്നത് രാത്രി ആയി ക കഴിഞ്ഞാൽ കള്ളന്മാരുടെ ശല്യം പിടിച്ചു പറികളുടെ ശല്യം ഇതൊക്കേ ഗ്രാമ പ്രദേശത്തെ ജനങ്ങള് ഇന്ന് നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ് ഇത് കുറയ്ക്കണമെങ്കിൽ ഗ്രാമ പ്രദേശങ്ങളില് പോലീസ് സ്റ്റേഷനും കോടതിയുമൊക്കെ വരേണ്ടത് അത്യന്താപേക്ഷിതമാണ്